ഞാൻ രണ്ട് ദിവസം മുൻപ് ഒരു പല്ലാസോ പാന്റ വാങ്ങിച്ചിരുന്നു മിന്ത്രയിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷെ ആ പ്രൊഡക്ടിന്റെ ആഡിൽ കാണിച്ചിരുന്ന തുണി വളരെ നല്ലതാരുന്നു പക്ഷെ എനിക്ക് ലഭിച്ച തുണി വളരെ മോശം ക്വാളിറ്റിയിൽ ഉള്ള ഒരു തുണി ആയിരുന്നു അതുമാത്രമല്ല അതൊരു സൈസും നമ്മള് കൊടുത്ത സൈസ് അല്ല അതില് വന്നിരുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ഡ്രസ്സ് ആണ് കിട്ടിയത് ഒരുപാട് പൈസയും ഉണ്ടായിരുന്നു ആ പ്രൊഡക്ടിന് പക്ഷെ ആ പൈസക്ക് അനുസരിച്ച് ഉള്ള ക്വാളിറ്റി ആ പ്രൊഡക്ടിന് ഉണ്ടാരുന്നില്ല വളരെ മോശം ആയിട്ടാണ് ആ പ്രോഡക്റ്റ് നമ്മുടെ കൈയിലെത്തിയത് ഒരുപാട് മോശം ആരുന്നു അത്